കായിക വിനോദമെന്ന് പറഞ്ഞേച്ചാല് കായിക വിനോദത്തിലെ അതിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞേച്ചാല് നമുക്ക് നമ്മളോരോത്തുരും കായികം അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമക്കോരോരോ പ്രവർത്തനങ്ങളുണ്ട് അപ്പോള് അതിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും കായികത്തിലൂടെ നമുക്കൊത്തിരി പ്രാധാന്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ടിപ്പോള് ഏതൊരു കാര്യത്തിലും നമ്മള് പങ്കെടുക്കാനും അതൊക്കെ നമുക്ക് മാക്സിമം കഴിയുന്നത്ര പറ്റിയാല് നമ്മുടെ അതായത് പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അല്ല നമ്മുടെ എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കായികം എന്ന് പറയുന്നത് അപ്പോള് ഇപ്പോള് കുഞ്ഞിലേ തൊട്ട് കായികമഭ്യസിക്കുന്ന ആൾക്കാർക്ക് വലുതാവുമ്പോള് ഭയങ്കര ഹെല്ത്തായിരിക്കും അപ്പോള് അങ്ങനെ അപ്പോള് പ്രോത്സാഹിപ്പിക്കാമെന്ന് പറഞ്ഞേച്ചാല് ഈ ഇനിയത് കായികം ഇതുപോലെതന്നെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണു ചെയ്യണ്ടതെന്ന് വെച്ചാല് ജിംനേഷ്യം ഓപ്പൺ ജിം യൂസ് ചെയ്യുക പിന്നതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന എക്സർസൈസ് യോഗാസ് അത് പോലൊക്കെ ചെയ്യുക പിന്നെ എറ്റവും കൂടുതല് ഓടുക നടക്കുക ഇതക്കെയാണ് ഇപ്പോള് ഒത്തിരി പേരൊക്കെ അങ്ങനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഏജായിട്ട് പോലും അങ്ങനെ ഒക്കെ ചെയ്യുന്നവരായിട്ട് ഒത്തിരി പേരുണ്ട് നമുക്ക് തന്ന അറിയുന്നവരാണ് ഒത്തിരി പേരുണ്ട്